സ്ത്രീകൾക്ക് വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ രാജ്യത്തുടന്നീളം സംസാരിക്കുന്നതല്ലേ നല്ല രീതിയിലുണ്ട് അവർക്കിപ്പോഴും പ്രശ്നങ്ങളുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് ഒന്ന് കറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വരുന്ന തരത്തിലില്ല ഇന്ത്യയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം പെട്ടെന്നൊരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അമ്പതിനും താഴെയാണല്ലോ പറയേണ്ടത് അത്രയ്ക്ക് കഷ്ടമാണവരുടെ കാര്യം വിദ്യാഭ്യാസത്തിലും അവസരങ്ങളിലുമൊക്കെ ഇപ്പം സ്ത്രീകളൊത്തിരി മുന്നിലോട്ട് വരുന്നുണ്ട് പുരുഷന്മാരേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഒരു പരിധിവരെ സ്ത്രീകൾക്കാണ് അവർക്ക് അവസരങ്ങളും അതനുസരിച്ച് ലഭിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ അവരുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷയെന്ന് പറഞ്ഞാൽ തീരെ കുറവാണ് നമ്മൾ പുറത്തുള്ള വിദേശരാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ തീരെ കുറവാണ് തീരെ കുറവാണെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ് പിന്നെ ജോലിയിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ അവർക്ക് തുല്യത തുല്യതയല്ല അതുക്കും മേലെ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വേണം വിചാരിക്കാൻ